ഇൻഡ്യയിലെ ഔദ്യോഗിക ഭാഷ ഹിന്ദി തന്നെയാണ് ഹിന്ദിയിലാണെങ്കില് നമുക്ക് ഇത് ഇൻഡ്യ ഇൻഡ്യയിലുള്ള എല്ലാവരും തന്നെ ഹിന്ദിയാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത് ഹിന്ദി സാധാരണ എല്ലാവര്ക്കും തന്നെ മനസ്സിലാവും ഇപ്പോള് കേരളത്തിലുള്ളവര്ക്ക് ഹിന്ദിയില് ചോദിക്കുന്ന ചോദ്യങ്ങക്ക് ഒത്തിരിയേറെ പെട്ടെന്ന് മറുപടി പറയാനായിട്ട് അറിയില്ല എങ്കിലും ഹിന്ദി എല്ലാവര്ക്കും തന്നെ മനസ്സിലാവുന്ന ഭാഷയാണ് നമ്മള് ചെറുപ്പം മുതലെ ഹിന്ദി പഠിക്കുന്നതാണ് നമ്മുടെ പാഠപുസ്തകം തന്നെ ഹിന്ദിയിലുണ്ട് അപ്പോള് തീര്ച്ചയായിട്ടും നമുക്ക് ഹിന്ദിയെ വളരെയേറെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു ഹിന്ദി ഭാഷ അറിയാമെങ്കില് നമുക്ക് എവിടെയും പോയി രക്ഷപ്പെടാമെന്നാണ് എല്ലാവരും പറയുന്നത് നമ്മളുടെ ഈ ഭാഷയോടൊപ്പം തന്നെ നമ്മളുടെ കള്ച്ചറിലും വ്യത്യാസങ്ങളുണ്ട് പക്ഷെ ആ വൈവിധ്യത്തെ കുറിച്ച് പറയുകയാണെങ്കില് നമ്മളുടെ ഭാഷയോടൊപ്പം തന്നെ നമ്മളുടെ കള്ച്ചര് നമ്മളുടെ ഭക്ഷണക്രമങ്ങള് നമ്മുടെ വസ്ത്രധാരണം ഇതെല്ലം തന്നെ ആ ഒരു ഭാഷയേയും ആ ഒരു സംസ്കാരത്തെയും അല്ലെങ്കില് അവരുടെ സ്ഥലത്തെയും കണ്ടുകൊണ്ട് നമ്മളുടെ വസ്ത്രധാരണത്തില് പോലും വ്യത്യാസങ്ങള് ഉണ്ടാകാറുണ്ട് നമ്മളുടെ ഔദ്യോഗിക ഭാഷ നമ്മുടെ ഹിന്ദി ആണെങ്കില് പോലും ഹിന്ദി കൂടുതലും അറിയാന് മേലാത്തവര് ആണ് ഇന്ന് കേരളത്തില് പൊതുവെ ഉള്ളവര് വടക്കേൻഡ്യയില് പോയി ജോലി ചെയ്യുന്നവര്ക്കാണ് ഏറ്റവും കൂടുതല് ഹിന്ദി അറിയാവുന്നത് അപ്പോള് ഹിന്ദി അറിയുന്നതിനോടൊപ്പം തന്നെ അവിടുത്തെ ആള്ക്കാരുടെ സംസ്കാരം മാറുന്നുണ്ട് അവരുടെ വസ്ത്രധാരണം മാറുന്നുണ്ട് അവരുടെ ഭക്ഷണരീതി മാറുന്നുണ്ട് അങ്ങനെ തീര്ച്ചയായിട്ടും നമുക്ക് നമ്മള് സംസാരിക്കുന്ന ഭാഷയോടൊപ്പം തന്നെ നമ്മളുടെ വസ്ത്രധാരണവും എല്ലാംതന്നെ അവിടെ മാറുന്നുണ്ട്